ഞാനെടുത്ത ചിത്രത്തിലെനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമെന്ന് പറയുന്നത് എന്റെ ചേട്ടൻ്റെ വൈഫും ചേട്ടൻ്റെ കൊച്ചും ഒരു പള്ളിയിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് അതായത് ചേട്ടന്റെ മോള് ക്രിസ്റ്റീനാ എന്നാണവളുടെ പേര് അവള് ആ അമ്മക്ക് അൺ എക്സ്പെക്റ്റഡായിട്ട് കൊടുക്കുന്ന ഒരു ഒരുമ്മയാണ് ആ ഒരു ചിത്രം ഞാൻ ഞങ്ങള് എല്ലാവരും വേളാങ്കണ്ണി പള്ളിയിൽ അന്ന് നേർച്ചക്കായിട്ട് പോയായിരുന്നു അപ്പം കുർബാനയുടെ സമയത്ത് അവള് ചേച്ചിയുടെ മടിയിൽ ഇരിക്കുവായിരുന്നു മടിയിലല്ല തോളിലിങ്ങനെ ചുമ്മാ കുസൃതികള് കാണിച്ചുകൊണ്ടിങ്ങനെ ആ ഇടയ്ക്ക് ചേച്ചിക്കിട്ട് അടിക്കുന്നു ഇടയ്ക്ക് ചേച്ചീനെ മഹാ പിച്ചുന്നു മാന്തുന്നു അതിന്റെ എല്ലാം എടുത്തു ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു സമയത്തെനിക്ക് തോന്നിയതാണ് ഇതൊരു നല്ല നിമിഷങ്ങളാണിത് ക്യാമറയിൽ പകർത്തിയാല് വളരെ ക്യൂട്ടായിരിക്കും അവൾ വളർന്ന് കഴിയുമ്പഴാണേലും അവളെ ഇത് കാണിക്കാമെന്നുള്ള ഒരു ഇതായില്ലേ പിന്നെ എന്നാണ് ഒരു അമ്മയും മോളും തമ്മിലുള്ള ഒരു നിമിഷത്തിന്റെ അത്ര അതിലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണത് എന്ന് പറയുന്നത് അപ്പം അത് പകർത്താമെന്നുള്ള രീതിയിൽ ഞാനെടുത്തൊരു ചിത്രമാണ് ഈ ചിത്രമെന്ന് പറയുന്നത് അപ്പം കൃത്യ സമയത്ത് അവരുടെ അവളുടെ കുസൃതികളും കാര്യങ്ങളെല്ലാം ഞാൻ ക്യാപ്ച്ചറ് ചെയ്തു അതിന്റെ കൂടെ തന്നെ അറിയാതെ ഈ കുസൃതികളും കാര്യങ്ങളും അതുപോലെ തന്നെ ഉപദ്രവം എല്ലാം കഴിഞ്ഞിട്ട് അവള് അമ്മക്ക് കൊടുക്കുന്ന ഒര് മുത്തം എനിക്ക് കൃത്യമായിട്ട് ആ ഒരു ഫോട്ടോയിലെനിക്കത് കിട്ടി എന്നും എന്റെ ഗ്യാലറിയിൽ ഇപ്പഴും എന്റെ മോസ്റ്റ് ഫേവറേറ്റായിട്ടിരിക്കുന്ന ഫോട്ടോ അത് തന്നെയാണ് കാരണം എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പം എന്റെ കുടുമ്പത്തിലേക്കാദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന ഏറ്റവും മൂത്ത ആളാണവൾ ചേട്ടന്റെ മോളെന്ന് പറയുന്നത് അപ്പം അവളെ അത്ര അധികം ഇഷ്ടപ്പെടുന്നത് അപ്പം അവൾ അവളുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒര് മുത്തം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പം ആ ഒരു വേളാങ്കണ്ണി പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെയുണ്ട് നമുക്കറിയാം വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചർച്ച് ആണത് അപ്പം ആ ഒരു ചർച്ചിന്റെ മനോഹാരിതയും അവരുടെ തമ്മിലുള്ള ഒരു ക്യൂട്ട്നെസിന്റെ മനോഹാരിതയും വന്നപ്പോൾ എന്തുകൊണ്ടും ഞാനെടുത്ത ഫോട്ടോയിലേറ്റവും ഫേമസായിട്ടുള്ള അല്ലേല് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിന് വീണ്ടും വീണ്ടും മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നതും അവളുടെ ആ ഒരു ക്യൂട്ട്നെസാണവളിപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരൊന്നര വർഷത്തോളമാകുന്നു ആ ഒരു സമയത്തിനുമിപ്പോഴ് കാണുമ്പഴും ആ ഒരു ഇതോട് കൂടി നമുക്ക് അവളുടെ ആ ഒരു കുഞ്ഞ് മുഖത്തോട് കൂടിയും അവളുടെ ആ ഒരു ഇതും ആ ചേച്ചി അതിലിടുന്ന ആ ഒരു എക്സ്പ്രഷനും നമുക്ക് വളരെ എന്താണൊരിക്കലും കണ്ണെടുക്കാൻ കണ്ടോണ്ട് തന്നെ ഇരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ആ ഒരു ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഫോട്ടോയെന്ന് പറയുന്ന എപ്പഴും ഒരോർമ്മകളാണ് ആ ഒരോർമ്മകളെ മനോഹരമാക്കുന്ന നല്ല ചിത്രങ്ങളാണ് ഇതുപോലുള്ള നല്ല നല്ല അല്ലെങ്കിൽ സ്നേഹ ബന്ധങ്ങളെ ഇത് ചെയ്യുന്ന ചിത്രങ്ങളെപ്പഴും നമുക്ക് വളരെ ആസ്വാദകരമാകാറുണ്ടത് പോലെ തന്നെ എപ്പോൾ കണ്ടാലും അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട് അവളിനി വളർന്ന് വലുതായി കഴിയുമ്പഴും ഇത് ഞാനെടുത്ത ഫോട്ടോയാണന്ന് നീ ഈ ഒരു സമയത്ത് കാണിച്ച കുറുമ്പിൻ്റെ ഫോട്ടോയാണ് ഇതെന്ന് പറഞ്ഞവളെ കാണിക്കാനെനിക്ക് ഞാൻ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോയായിട്ട് അത് മാറുന്നു അതിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു സ്നേഹത്തിന്റെ ഇത് കൊണ്ടാണ് ആ ഫോട്ടോ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നുന്നത്